ഹലോ ഹലോ സാർ ഞാൻ എങ്ങനെയാണ് സാറിനെ സഹായിക്കേണ്ടത് ആ ആ ഓക്കെ ആ സാർ എത്ര ദിവസത്തേക്കാണ് ട്രിപ്പ് സാറ് ബുക്ക് ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഓക്കെ ആ കോവളം ആണല്ലേ സാർ ആ ആ ഓക്കെയാക്കാം സാർ നിങ്ങൾ എത്ര പേരുമായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഫാമിലിയുമായി

പതിനാല് പേര് അപ്പം വണ്ടിയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണോ സാറിന് ചെയ്യുമോ എങ്ങനെയാണ് ആ ഓക്കെ സാർ അപ്പോൾ അതിൻ്റെ കൂടെ ചാർജും കൂടും നമ്മൾ അറേഞ്ച് ചെയുമ്പോൾ അത് കുഴപ്പം ഇല്ലല്ലോ ചാർജ് കൂട്ടാല്ലോ ആ ഓക്കെ ആ ആ അപ്പം എന്ന് വരാനാണ് സാർ ആഗ്രഹിക്കുന്നത് എന്ന് ഓക്കെ മറ്റന്നാള് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രാവിലെ ഒര് ആറ് മണിക്കിവിടെ എത്തുന്ന രീതിയിൽ ഇറങ്ങി നിൽക്കാമോ ഓക്കെ കാരണം നമ്മൾ ഇന്നലെ സൂര്യ ഉദയം കാണാൻ വേണ്ടിയിട്ട് ഒര് പ്ലാൻ ചെയ്യുന്നുണ്ട് കണ്ടിട്ട് വരുമ്പോൾ ആ അതുകൊണ്ടാണ് രാവിലെ ആറ് മണിക്ക് ആ ഒര് സമയത്ത് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞത് അത് അപ്പോൾ കുട്ടികള് കാണുമോ സാറിൻ്റെ കൂടെ അതാവുമ്പോൾ പതിനാല് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഓക്കെ അപ്പം അവർക്ക് നല്ല എൻജോയ്മെന്റാണ് അതുകൊണ്ട് രാവിലെ അവര് ആദ്യമായിട്ട് കാണുവാണെങ്കിലും അടുത്തുന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ ആ ഉണ്ട് സാർ ഇവിടെ ഇവിടൊര് ഗുഹ ഒക്കെയുണ്ട് ഇതുമായിട്ട് നമ്മള് ബന്ധപ്പെട്ടിട്ട് സാറ് കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവിടൊക്കെ പോയി വിസിറ്റ് ചെയ്യാൻ ഒര് പ്രാവശ്യം പിന്നെ ക കടല് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് മീൻപിടിത്തം അങ്ങനെ എല്ലാം ഉണ്ട് സാർ ഇപ്പം ആ റൂമൊക്കെ നമ്മളുടെ ഇവിടുന്ന് ഫ്രീയാണ് അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ

പത്ത് മുറി മതി അത് മതി ആ ആ ഓക്കെ സാർ അത് ചെറിയ എസിയില് ആ എ സി ഉണ്ട് ആ ഓക്കെ അതുണ്ട് ഇവിടെ അവൈലബിളാണ് പിന്നെ സാർ എന്തെങ്കിലും ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് ആ ഓക്കെ ഇവിടെ എല്ലാം സാറ് പറയുന്ന പോലെ എല്ലാം അഡ് ചെയ്യാം ഒര് പ്രശ്നം ഇല്ല ആ സാർ കൊണ്ട് വേരാം ഇവിടെ വെരുമ്പം നിങ്ങൾക്ക് എല്ലാർക്കും ആധാർ കാർഡ് എടുക്കണം കുട്ടികൾക്ക് ഉൾപ്പെടെ ആധാർ കാർഡ് വേണം കാരണം നമുക്ക് ഒരു ഫോം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു

ബാക്കി ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് ആ പിന്നെ സാർ വരുമ്പോൾ എല്ലാവരും പേര് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി എടുക്കണം കുട്ടികൾ ഉൾപ്പെടെ എത്ര പേര് വരുന്നുണ്ട് ആ സാർ വേറെ സംശയമുണ്ടോ സാർ ആ ഉണ്ട് രണ്ട് പേര് ആ നിങ്ങളുടെ പേര് അഡ്രസ്സ് സ്ഥലം ആധാർ കാർഡ് നമ്പറ് കാരണം ആരെങ്കിലും മിസ്സാവുക അങ്ങനെ എന്തേലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കാണ് അതുകൊണ്ട് ആ ഇതിൽ തന്നെ വിളിച്ചേക്ക് അപ്പോൾ നമ്മള് കൺഫർം ചെയ്തിട്ട് ബുക്ക് ആ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി